ഈ പഴയ തലമുറയും യുവതലമുറയും തമ്മില് നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര വലിയ അന്തരം ആണുള്ളത് അതിനിപ്പോൾ സാങ്കേതിക വിദ്യകളുടെ വലിയ രീതിയിലുള്ള വളർച്ച യുവതലമുറയുടെ മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക തകർച്ചയിലേക്കാണ് അവരെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോണിൽ അവര് അഡിക്റ്റായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പഴയ തലമുറയിൽ ഉള്ള ആളുകൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്നായി അധ്വാനിച്ചിട്ടും ചെയ്തിട്ടും ഒക്കെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പുതിയ തലമുറയിലുള്ള യുവാക്കള് അതിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല

നമ്മള് ഒരു ഞാനൊരു മധ്യ തലമുറയുടെ ആളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷേ പിന്നെ രണ്ടു പേരുടെയും സന്തുലിതാവസ്ഥയിൽ കൊണ്ടു പോകാൻ ഉള്ളത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ പറഞ്ഞു മനസ്സിലാക്കാനും പക്ഷേ യുവതലമുറക്ക് നമ്മള് പറയണത് ഉൾക്കൊള്ളാൻ അധിക സമയത്തും സാധിക്കാറില്ല